പതിനെട്ട് നാല് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് പതിയെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്